ഗ്രാമീണ പ്രദേശത്തെല്ലാം ഇത് നല്ല ഉപകരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കമ്പളം പോലെയുള്ള പോത്തോട്ട മത്സരങ്ങളെല്ലാം ഇതു ഭയങ്കരമായിട്ടുള്ള പ്രചാരമുള്ള കളിയാണിവിടെ അപ്പം അതുപോലത്തെ കളികൾ ഇവിടെ ഗ്രാമീണ പ്രദേശത്ത് ഉള്ള അതുപോലെയുള്ള കളികൾ നല്ലൊരു ഇതാക്കുന്നുണ്ട് അത് എല്ലായിടത്തും ഇവിടെ ഓരോരു ഏരിയയിലും വയ്ക്കുന്നുണ്ട് അതായത് കണ്ടത്തിൽ നമ്മൾ ആ ഇങ്ങനെ പോത്തിനെ ഓടിച്ചിട്ടുള്ള കളിയിൽ അത് ഭയങ്കരം ആയിട്ടുള്ള ഇതിൽ നടക്കുന്നുണ്ട് കമ്പളം എന്നു പറയും ഇവിടെ കാസർഗോഡ് അപ്പോൾ അത് അങ്ങനത്തെ കളിയെല്ലാം ഗ്രാമീണ ഇതായിട്ട് അത് ഭയങ്കരമായിട്ട് ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു കളിയാണ് അപ്പോൾ അങ്ങനത്തെ കളി എപ്പോഴും ഉണ്ടാവുന്നു അതു നല്ല ഇതിന് ആരാണ് നമ്മളെ പാരമ്പര്യമാണ് ഇതിനുതന്നെ ഭയങ്കര പ്രചരിപ്പിക്കാനത് ഇതാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലത്തുള്ള ഇപ്പോൾ കുടുംബശ്രീ പോലെയുള്ള ഇത് ഇവിടെ ഓരോരോ കളികളെല്ലാം നടത്തുന്നുണ്ട് പാടത്ത് നടത്തുന്നുണ്ട് അതേപോലത്തെ കളിയെല്ലാം ഭയങ്കര പാരമ്പര്യത്തിൻ്റെ ഇതെല്ലാം നല്ല പ്രചരിപ്പിക്കാൻ ഇതാവുന്നുണ്ട്